എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ നേരിടേണ്ടി വന്ന വെല്ലുവിളിയെന്ന് പറയുന്നത് പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെയുള്ള സമയം തന്നെയാണ് ഇപ്പോൾ നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനമുണ്ടാക്കാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പണം പണമില്ലാതെ ഇപ്പോൾ ഒന്നും നമുക്ക് വാങ്ങാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയാല് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ ജോലി കിട്ടാൻ വൈകുന്തോറും നമുക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും വീട്ടീൽ നിന്നാണെങ്കിലും പിന്നെ പുറത്ത് നിന്നാണെങ്കിലും റിലേറ്റീവ്സിൽ നിന്നാണെങ്കിലും ഒരുപാട് സ്ട്രെസ് അവരുടെ ചോദ്യങ്ങൾ ജോലി കിട്ടിയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കയാണ് പിന്നെന്തിനാണ് പഠിച്ചത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ എൻ്റെയൊരു വെല്ലുവിളി നിറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഞാൻ വെല്ലുവിളി നേരിട്ട ഒരു ഒരു സംഭവമെന്ന് പറയുന്നത് ജോലി കിട്ടാൻ വൈകിയത് തന്നെയാണ്